മിനിചേച്ചി അല്ലെ ബ്യൂട്ടി പാർലറിലെ ചേച്ചി ഞാൻ വിളിച്ചതേ എനിക്കൊരു പെഡിക്യൂറ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പം എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ വിളിച്ചതേ അതെ ഇല്ല ഞാൻ ആദ്യവായിട്ടാ ചെയ്യുന്നതെ അപ്പം എനിക്കിങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനാന്നൊക്കെ ഒന്നു പറയുവായിരുന്നേല്

അല്ല പെഡിക്യൂറ് തന്നെയല്ലേ ചെയ്യുന്നത് ഈ രണ്ടു മണിക്കൂറ് മൂന്നു മണിക്കൂറ് എന്ന് പറയുമ്പോൾ അതില് ഇപ്പം എന്തോ പ്രത്യേകിച്ച് വ്യത്യാസം വരാനാ

നിങ്ങള് ഈ ക്യാഷിനു വേണ്ടിയിട്ടല്ലേ ഈ രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് കൂടുതലുള്ളതൊക്കെ പറയുന്നേ അപ്പോൾ നോർമൽ ചെയ്താലും ഏത് ചെയ്താലും പെഡിക്യൂറ് ഒന്ന് തന്നെയല്ലേ അപ്പോൾ ഈ കുറച്ച് സമയം ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രോഡക്റ്റും കൊണ്ടാണോ ചെയ്യുന്നത് അപ്പോൾ ഇത് വിത്ത് നെയിൽ പോളിഷും കൂടാണോ നെയിൽ പോളിഷ് വരുന്നുണ്ടല്ലൊ അപ്പോൾ നമുക്ക് ഇത് എനിക്കിത് കഴിഞ്ഞിട്ട് ഒരു ഫങ്ഷന് പോകാനുണ്ട് പോം സമയം ഒത്തിരി ഒത്തിരി സമയം ആകുമോ അത് ഞാൻ എപ്പഴത്തെനാണ് വരേണ്ടത് ഫങ്ഷൻ ഒരു വൈകുന്നേരം നാലുമണിയൊക്കെ ആകുമ്പോഴത്തെനാണ് അല്ല ഇത് ചെയ്ത് ഇവിടുന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഇല്ല നമ്മള് സൽവാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിന് ആ ആ രണ്ട് മണിക്കൂറ് മുന്നേ ആ അപ്പോൾ എനിക്ക് നല്ല ടാൻ ഉണ്ട് ഒത്തിരി അപ്പോൾ അതെല്ലാം റീമൂവ് ആവുന്ന തരത്തിൽ ആയിരിക്കുവല്ലോ അല്ലേ ചെയ്യുന്നത്

ഓക്കെ അപ്പോൾ ഞാൻ ഒരു ഒന്നര രണ്ടൊക്കെ ആകുമ്പോഴത്തേനും വരാം ഓക്കെ ശരി എന്നാൽ